ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും മലയാളമെന്ന് പറയണത് ഒരു സ്ബ്ജറ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ആദ്യം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളില് മലയാളം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് മലയാളം എഴുതാനോ വായിക്കാനോ ചിലപ്പോൾ സംസാരിക്കാൻ പോലും അറിയാത്തൊരു സിറ്റ്വേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും മലയാളത്തിനെ പ്രോൽസാഹിപ്പിക്കാനായിട്ട് അവരുടെ സബ്ജക്ട് എന്ന രീതിയില് മലയാളത്തിനെ പഠിപ്പിച്ചു തരുന്നുണ്ട് പിന്നെ എല്ലാ സ്കൂളുകളിലും നോക്കുകയാണെങ്കില് കുറെ അവെയർനെസ്സ് പ്രോഗ്രാം നടക്കുന്നുണ്ട് പിന്നെ ആർട്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് മലയാളത്തിന് മലയാളത്തോട് അനുബന്ധിച്ചിട്ട് പ്രസംഗ മത്സരം പ്രഭാഷണം എസ്സേ എസ്സേ റൈറ്റിങ്ങ് പോയം അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ സ്കൂൾ വഴി മലയാളത്തിന് നല്ലൊരു പ്രോൽസാഹനമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മടെ നാടുകളില് അല്ലെങ്കിൽ ഗ്രാമ പ്രദേശങ്ങളിലൊക്കെ വായനാശാലകളില് കൂടുതലും മലയാളം ബുക്കുകളാണ് കണ്ടുവന്നിരിക്കുന്നത് നോവലുകള് അതുപോലെത്തന്നെ കവിതകള് കാവിതാ സമാഹാരങ്ങള് അങ്ങനെ ഒരുപാട് ബുക്കുകളുണ്ട് മലയാളം ബുക്കുകള് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നാട്ടിലെ നാട്ടിൻപുറത്തെ കുട്ടികൾക്ക് അതുപോലെത്തന്നെ ബാക്കിയുള്ളർവർക്കും വായിച്ച് വളരാവുന്ന രീതിയിലാണ് വരുന്ന വായനശാലകള് അവര് സെറ്റാക്കിയിരിക്കണത് അതുകൊണ്ടുതന്നെ ഇത്തരം കാര്യങ്ങളിലൂടെ തന്നെ നമുക്ക് മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും കൂടാതെ തന്നെ ഇപ്പോൾ പല സൈറ്റുകളിലും നമ്മള് ഇംഗ്ലീഷ് ഹിന്ദി എന്ന ലാംഗ്വേജ് സെലക്ട് ചെയ്യണ പോലെ മലയാളം എന്നൊരു സെലക്ട് ചെയ്യാൻ എന്ന ലാംഗ്വേജ് കൂടി സെലക്ട് ചെയ്യാൻ ഓരു ഓപ്ഷൻ കൂടി പലയിടത്തും കൊണ്ടുവരുന്നുണ്ട് ഇനിയും കുറെ സ്ഥലങ്ങളിലും കൊണ്ടുവരാനും നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു മലയാള ഭാഷേനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്